നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയിൽ ചിലതാണ് ദാരിദ്ര്യം തൊഴിലില്ലായ്മ ജനസംഖ്യ വർദ്ധനവ് സാമ്പത്തിക പ്രതിസന്ധി ഇതിൽ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ അതിരൂക്ഷമായ ഒന്നാണ് നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒന്നാണ് വിവിധ ഡിഗ്രികൾ കയ്യിൽ ഉണ്ടെങ്കിലും യാതൊരു തൊഴിലും കിട്ടാതെ ഇപ്പോഴും നടക്കുന്ന യുവതലമുറ അതേപോലെ അല്ലെങ്കിൽ വിദേശരാജ്യങ്ങളിൽ അഭയം പ്രാപിച്ചു പോകുന്ന യുവതലമുറ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ ഇന്ന് ലോകരാഷ്ട്രങ്ങൾ ഇടയിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയ്ക്ക് അതേപോലെ ജനസംഖ്യ വർദ്ധനവിൽ മുന്നിട്ടു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ നല്ല രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ നമ്മുടെ സർക്കാർ ഇതിനെതിരെ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയെപ്പോലെ ഒരു വലിയ രാജ്യത്ത് ദാരിദ്ര്യം നിർമ്മാർജ്ജനം എന്നത് ഒരു ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ജനസംഖ്യ വർദ്ധനവ് കൂടുതൽ കൊണ്ടും തൊഴിലില്ലായ്മ രൂക്ഷമായത് കൊണ്ടും നമ്മുടെ ഗവൺമെൻറ്റ് ഒരുപാട് പദ്ധതികൾ ഇതിനെതിരെ ആവിഷ്കരിക്കുന്നുണ്ട് സ്വയം തൊഴിൽ പദ്ധതികൾ അല്ലെങ്കിൽ സാമൂഹ്യ സുരക്ഷ പദ്ധതികൾ പ്രധാനമന്ത്രി തൊഴിൽദാന പദ്ധതി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയെല്ലാം ഇവയിൽ ഇവയിൽ ചിലത് മാത്രമാണ് എന്നിരുന്നാൽ കൂടിയും നമ്മുടെ രാജ്യം ഈ പ്രശ്നങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്നത് വലിയ ഒരു സങ്കീർണ്ണതകൾ തന്നെയാണ്